വൈദ്യുതിയെന്ന് പറഞ്ഞിട്ടുണ്ടേ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ഇപ്പം അലക്ഷ്യമായിട്ട് ഇപ്പം ഞാൻ പറയട്ടേ വൈദ്യുതി കമ്പിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വൈദ്യുതി നമ്മൾ സൂക്ഷിക്കണം കാരണം ഫാനായാലും ടി വി ആയാലും വാഷിംഗ് മഷീൻ എന്തിട്ടാലും ചിലപ്പോൾ ഷോക്കടിക്കാൻ പറ്റും നമുക്ക് അലക്ഷ്യമായിട്ട് നമ്മൾ കുത്തുന്നതാണെങ്കിലും ഷോക്കടിക്കും ഇസ്തിരി പെട്ടിയിൽ നിന്ന് നമുക്കെപ്പോഴും ഇടക്കിടക്ക് ഷോക്കടിക്കില്ലേ ഇൻഡക്ഷൻ കുക്കർ നമ്മളെല്ലാം നോക്കണം ചിലപ്പോൾ പൊട്ടിതെറിക്കാനും പിന്നേ ഇടി വെട്ടുമ്പോൾ നമ്മൾ എല്ലാം അതായത് എല്ലാം ഊരി വെക്കണം കാരണം ഇടി വെട്ടുമ്പം കരണ്ട് നമുക്ക് മുഴുവൻ അടിച്ച് പോകാൻ ചാൻസുണ്ട് മിന്നലടിക്കുമ്പോഴും ഇടി പൊട്ടുമ്പോഴും പിന്നേ വൈദ്യുതി ഉപകരണങ്ങൾ നമുക്ക് അടിച്ചു പോകാൻ ചാൻസുണ്ട് അപ്പോൾ നമ്മളെന്താ ചെയ്യുക അതൊക്കേ ഊരി വെക്കണം അതേപോലെ തന്നെ കുത്തിയിട്ട് നമ്മളേ നമ്മുടേ ഉപയോഗം കഴിഞ്ഞിട്ട് അത് ഓഫാക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ പിന്നേ നമുക്ക് ഷോക്കടിക്കാനോ ചെറിയ മക്കളൊക്കേ ഉള്ള വീടാണെങ്കിൽ നമ്മൾ കുത്തിയിട്ടിട്ട് അങ്ങ് പോയിയെന്ന് വിചാരിച്ചോ മക് നമ്മൾ ശ്രദ്ധിക്കാതെ പോന്നാൽ മക്കളൊക്കേ വന്ന് പിടിച്ച് എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നേ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് കരയാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ ഒരു കുഞ്ഞുങ്ങളെ മുഖം കാണുമ്പോൾ നമ്മളൊക്കങ്ങനെയൊക്കേ ചെയ്യണം നമ്മൾ ഓരോ ഓരോന്ന് കാര്യം നോക്കി ലയ്റ്റാണെങ്കിൽ ലയിറ്റ് ഓഫാക്കേണ്ടത് ലയിറ്റ് ഓഫാക്കണം പിന്നേ ഫാൻ വെറുതെയിട്ട് ഫാനിൽ വലിയ ഇതില്ലാ നമ്മൾ ഇടി വെട്ടുമ്പം മാത്രമാണ് ഫാനടിച്ച് പോകുന്നത് എറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് മിക്സിയും പിന്നേ ഇൻഡക്ഷൻ കുക്കർ അതേപോലെ തന്നേ മിക്സിയൊക്കെയാണ് മിക്സി ഇൻഡക്ഷൻ കുക്കർ പിന്നേ അയൺ ബോക്സൊക്കേ നമ്മൾ നന്നായി നോക്കണം ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഓഫാക്കി അത് മാറ്റി വെക്കാൻ ശ്രദ്ധിക്കണം